എന്റെ അഭിപ്രായത്തിൽ ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങൾ താമസിക്കുന്ന വീട് മിക്കവരുള്ളോരും പുറത്തേക്ക് പോയി പുറം ലോകം അധികവർ കണ്ടിട്ടില്ല അതായത് ഇപ്പോഴത്തെ ജെനറേഷൻൽ ഒരുപാട് കുറച്ച് മുൻപത്തെ അതായത് നയൻറ്റീസ്സ് കഴിഞ്ഞ് അതിന് മുന്പുള്ള നയൻറ്റീസിലുള്ള കുറെ കുറച്ചാൾക്കാർ വീട്ടിലൊതിങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ ഉറപ്പായിട്ടും പുറത്തേക്ക് പുറത്തേക്ക് പോയിട്ട് ഒരുപാട് കാണാനുണ്ട് നമ്മൾ ഒരിക്കലും വീട്ടിലിരുന്നഴിഞ്ഞാൽ അതിൻറ്റൊരു ഭംഗി നമുക്കാസ്വദിക്കാൻ പറ്റത്തില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാലെ നമുക്കുറപ്പായിട്ടുവതിൻ്റെ ഭംഗികൾ എന്തെക്കെയാണെന്ന് നമുക്ക് മനസിലാക്കാൻ പറ്റു ഈ എന്ത സമൂഹത്തിൽ ഇപ്പോൾ അതായത് വിനോദങ്ങൾ അതിനകത്ത് ഗ്രാമങ്ങളിൽ നിന്ന് ഒരു ടൂറ് പോവാന്നറ വിനോദ യാത്ര പൂവാൻ സംഘടിപ്പിയ്ക്കാന്ന് പറയുമ്പോൾ നമ്മൾ മെയ്നായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലം കേരളത്തിത്തന്നൊരുപാട് സലങ്ങളുണ്ട് കേരളം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കാണാൻ ഒരുപാട് മ്യൂസിയംസുണ്ട് സൂവൊണ്ട് പാർക്ക്കളുണ്ട് എൻ അ എഞ്ചോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കിഡ്സിൻ്റെ വരുന്ന ഒരുപാട് വണ്ടർലാ പോലൊരുപാട് സംഭവങ്ങളുണ്ട് ഇതക്കെ ഒരു കാണാത്ത ആൾക്കാരുമുണ്ട് അറിയാത്ത ആൾക്കാരുമുണ്ട് അവരേം അവരേങ്കൂട്ടിയൊരു യാത്രാന്ന് പറയുന്നത് അവർക്കൊരു മൈൻറ്റിന് നല്ലൊരു സന്തോഷവായിരിക്കും വിനോദ സഞ്ചാരത്തെ ഇതൊക്കെ പ്രോൽസി പ്രോത്സാഹിപ്പിക്കണം ഇത് വിനോദ സഞ്ചാരം എന്ന് പറയുന്നത് തന്നെ ഏറ്റോം മനോഹരമായ ഒന്നാണ് വീട്ടിൽ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ വിഷമങ്ങളൊക്കെ നേരിടുന്ന ഒരുപാട് സ്ത്രീകൾ കുട്ടികളൊക്കെയുണ്ട് പരീക്ഷയെ പേടിക്കുന്ന പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴും ടെൻഷൻ കാത്തിരിക്കാൻ അവർക്ക് റിലാക്സ് ചെയ്യാൻ നമ്മളൊക്കെയീ വിനോദത്തിന് പൂവാന്ന് പറയുമ്പം ഏറ്റോം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് വിനോദത്തിന് പോ വിനോദം വിനോദയാത്രയ്ക്കൊക്കെ പോയിക്കഴിയുമ്പം നമ്മൾ മറ്റുള്ളവരുവായിട്ട് കൂടുതൽ ഇൻട്രാക്ററ് ചെയ്യുന്നു അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണും അവരുടെ ആ രീതികൾ കാണും ഫുഡ്ഡ് അങ്ങനുള്ള ഒരുപാട് ഫുഡ്ഡ് ഫുഡ്ഡ് മേ മെയിനായിട്ട് ഫുഡ്ഡ് പല സ്ഥലങ്ങളിലുള്ള ഫുഡ്ന്ന് പറയുന്നത് അത് മെയിനാണ് നമുക്ക് കഴിച്ചിട്ടില്ലാത്ത ഒരുപാട് ഐറ്റംസ്സ് പല സ്ഥലങ്ങളിലുണ്ടല്ലൊ അതിപ്പം ടേയ്സ്റ്റ് ചെയ്യാൻ പറ്റുകാന്ന് പറയുന്നതും മറ്റുള്ളവരുടെ സംസാരിക്കാൻ പറ്റുവാന്ന് പറയുന്നതും പ്രോത്സാഹനമാണ് അപ്പം ഈ ഇതുപോലുള്ള സഞ്ചാരങ്ങളക്കെ ഉണ്ടെങ്കിത്തന്നെ നമുക്ക് നമ്മൾ ഹാപ്പ്യാകും സന്തോഷാവും അപ്പം വിനോദയാത്രകൾ നടത്തുകാന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യന്തന്നെയാണ് ഒരിക്കലുവത് അവസരങ്കിട്ടിക്കഴിഞ്ഞാലത് വേണ്ടാന്ന് വെയ്ക്കരുത് അത് ഏത് ഏതിലായാപ്പോലും ഇപ്പിതൊരു തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റേഴ് വയസായാലും അറുപത്തഞ്ച് വയസായാലും എഴുപത് വയസായാലും നമ്മൾ ഒരിക്കലും വിനോദ സഞ്ചാര മേഖലകൾ വിനോദ സഞ്ചാരത്തിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരിക്കലും പോവാതിരിക്കരുത് പോയിത്തന്നെ നമ്മൾ അതിലെന്താണ് എന്തൊക്കെയാണ് നമ്മൾ കണ്ട് തന്നെ അനുഭവിക്കണം കണ്ടനുഭവിക്കുന്നതിലും മനോഹരമായിട്ട് മറ്റൊന്നുവില്ല ഓരോ കവികൾ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലൊ കവിതകളിൽ മാത്രം ഒതുങ്ങുന്ന സംഭവങ്ങളല്ല പ്രകൃതിയിലേക്കിറങ്ങി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കിറങ്ങി കാണുന്നതും കാണുന്നതൊക്കെയായിരിക്കും അവർ പേപ്പറിൽ കുറിക്കുന്നത് അതെന്തെന്ന് മനസിലാക്കാൻ നമുക്കിതുപോലുള്ള യാത്രകളൊക്കെ ഒരുപാട് പ്രയോജനപ്പെടും എന്നും തീർത്ഥാടനം മാത്രമായിട്ട് പോണമെന്നല്ല പോവുന്ന ആൾക്കാരുമുണ്ട് അല്ലാതെയി ഫണ്ണായിട്ട് പോകുന്ന ആൾക്കാരുമുണ്ട് പ്രകൃതീടെ ദേ ഇതുപോലെ സൂയിൽ മൃഗങ്ങളെക്കാണാൻ പോവാം പാർക്കിൽ പോവാൻ കുട്ടികളുവായിട്ട് പാർക്കിൽ പോവാൻ ഗ്രാമ ഗ്രാമങ്ങളിൽ നിന്ന് ഒരുപാട് ന്യൂ സിറ്റീലേക്ക് പോയ്ക്ക സിറ്റിലേക്ക് പോകുമ്പം അവരുടെയൊരു മാറ്റങ്ങൾ നമുക്കറിയാമ്പറ്റും നമ്മൾ അന്നേരം കാലത്തിനൊത്ത് മാറും അപ്പം ഏറ്റോം വിനോദ സഞ്ചാരമേറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ നമുക്ക് സഹായിയ്ക്കേം ചെയ്യും കുട്ടികൾക്ക് കുട്ടികളെ കൂടെക്കൂട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമാകും വല്ലപ്പോഴും അതിനൊത്ത ഫാമിലിയായിട്ട് അല്ലാട്ടോ നമ്മുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരുവായിട്ടോ ഒരു വണ്ടി ചെറിയൊരു വണ്ടി വിളിച്ച് പോവാൻ പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യം തന്നെ എൻ്റെ നാട്ടിലൊരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ ആൾക്കാർ ചെറിയ വണ്ടികളക്കെ വിളിച്ച് പോവുന്നവരുണ്ട് കുട്ടികളുവായിട്ട് ടൂറ് പോകുന്നവരുണ്ട് അപ്പം കുട്ടികൾക്ക് ഒരു മനസിന് റിലാക്സ്സ് കിട്ടും അവരുടെ എഡ്യൂക്കേഷൻ സ്ട്രെസ്സ് കുറയ്ക്കാം അങ്ങനൊക്കെയുള്ളൊരു ഒരുപാടും ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് വിനോദ സഞ്ചാരം എനിക്ക് വിനോദ സഞ്ചാരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതെല്ലാം പ്രയോജനപ്പെടുത്തുകാന്ന് പറയുന്നത് തന്നെ നമ്മളുടെയൊരു കഴിവാണ് അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞത് പോലെ എപ്പോഴവസരം കിട്ടിയാലും നമ്മൾ അ വിനോദ സഞ്ചാരം തെരഞ്ഞെടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ വരും അപ്പം ഒരുപാട് മാറ്റംന്നറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരും നമ്മളുടെ നമ്മളിപ്പം പേഴ്സണാലിറ്റി തന്നെ നമുക്ക് ചേഞ്ചസ് വരും മറ്റുള്ളവരെങ്ങനെയാണ് സംസാരിക്കുന്നത് അ അവരുടെ വസ്ത്രധാരണം ഇങ്ങനെയാണല്ലെ സംസാരിക്കുന്നത് അങ്ങനെയാണെല്ലോ അവരുടെ കൾച്ചറിങ്ങനെയാണല്ലൊ അവർ ഫുഡ്ഡക്കെ അങ്ങനെയാണാല്ലൊ ഇതക്കെ ഓരോത്തടത്തും മാറുന്നതിങ്ങനെയുള്ള വിനോദ യാത്രകളക്കെ പോകുമ്പോഴായിരിക്കും മാറുന്നത് ആല്ലാതൊരിക്കലും മാറ്റങ്ങളക്കെ വരണോന്നില്ലല്ലൊ ഇതും ഞാൻ പ്രോത്സാഹിപ്പിക്കും ഉറപ്പായിട്ടും ഞാൻ വിനോദ സഞ്ചാരത്തെ പ്രോൽസാഹിപ്പിക്കും ഞാനൊരുപാട് യാത്രകൾ ചെയ്യുന്നൊരാളാണ് അപ്പം എനിക്ക് ഇഷ്ടമാണ് ഇതുപോലുള്ള മറ്റുള്ളവരെ ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെ കൊണ്ടുപോകാനും അവർക്ക് പതിയെ കാര്യങ്ങളൊക്കെയൊന്ന് പറഞ്ഞ് കൊടുക്കാനും എനിക്ക് വളരെ ഇഷ്ടം തോന്നി താല്പര്യമുള്ള സംഭവം തന്നെയാണ് ഈ വിനോദ സഞ്ചാരം